ഞാന് പോയിട്ടുളൊരു നല്ല ഒരു സ്ഥലമാണ് ഫന്നാറോക്ക് ഇത് അമ്പലവയലിലാണ് സ്ഥിതിചെയ്യുന്നത്

അത് നാച്ചുറലായിട്ട് ഉണ്ടായതാണ് ഇതിന്റെ ആകൃതിയെന്നു പറയുന്നത് ഒരു മനുഷ്യന്റെ തലയോട്ടി ആ ഒരു രൂപസാദൃശ്യമുള്ള ഒരു പാറയാണ് അതുകൊണ്ടാണ് അതിന് ഫാനറോക്ക് എന്ന് പേര് കിട്ടിട്ടുള്ളത് ഈ ഇതിന്റെ മേലെന്നു നോക്കിക്കഴിഞ്ഞാല് നമുക്ക് വളരെ മനോഹരമായ ദൃശ്യങ്ങള് കാണാനും പറ്റും നമുക്കൊരു വ്യത്യസ്ത അനുഭവം ആണ് അതോടപ്പം നമുക്ക് പല അഡ്വഞ്ചര് ആയിട്ടുള്ള ഇത് ഒരു അനുഭവം നമുക്ക് ഇഇ ഫാനറോക്ക് കയറി കഴിയുമ്പോൾ കിട്ടും